ഓഡർ ചെയ്താൽ സാധനം അതു ചെയ്ത ആൾക്ക് കൃത്യമായിട്ട് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്ത്വ മാണ് ഇപ്പോൾ ഞാൻ ഓഡർ ചെയ്ത സാധനം അതിൻ്റെ പാക്കേജ് പാക്കിങ് ശരിയല്ലാത്തതു കൊണ്ട് അത് പൊട്ടിയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതു കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പിഴവാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ചിലവാക്കിയ കാശ് തിരിച്ചുകിട്ടണം എനിക്ക് റീഫണ്ട് ചെയ്തേ പറ്റുകയുള്ളൂ ഇത് പാക്കിങ് കാരണം മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം പറ്റിയത് ഈ ഞാൻ ഓഡർ ചെയ്തത് ഒരു പൊട്ടുന്ന സാധനമാണെന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ അതു നല്ല സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് അയക്കണമായിരുന്നു നിങ്ങളുടെ പാക്കിങ് വളരെ മോശമായതു കൊണ്ടാണ് ഇതു പൊട്ടിയത് ഇപ്പം എനിക്ക് ഇവിടെ നഷ്ടമായത് എൻ്റെ കാശാണ് അതു ഞാൻ ഓഡർ ചെയ്ത സാധനം എനിക്കു കിട്ടിയിട്ടില്ല എനിക്കിതു കാരണം സമയ നഷ്ടമുണ്ട് അതുകൊണ്ട് എനിക്ക് റീഫണ്ടിങ്ങ് ചെയ്തേ പറ്റുകയുള്ളു നിങ്ങൾ റീഫണ്ട് ചെയ്തേ പറ്റുകയുള്ളൂ എൻ്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടണം പിന്നെ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്തത്തോടെ ചെയ്യാനായിട്ടു നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനൊരു കാര്യം ഓഡർ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പുറത്തെയാണ് നമ്മൾ ഓഡർ ചെയ്യുന്നത് ഇത് ഇവിടെ എത്തുമ്പോൾ പൊട്ടിയിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇതുകൊണ്ട് ഇനിയിത് ഇങ്ങനെ മുൻപോട്ടു കൊണ്ടു പോകാൻ പറ്റത്തില്ല റീഫണ്ട് ചെയ്തേ പറ്റുകയുള്ളൂ ഞങ്ങളുടെ കാശ് നഷ്ടമാക്കാൻ ഞങ്ങൾക്കു പറ്റത്തില്ല ഓഡർ ചെയ്ത സാധനം അല്ലെങ്കിൽ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ടു കൊണ്ട് എത്തിക്കാണ് നിങ്ങൾ ആ അതു അത്രയും നല്ല പാക്കിങ് ചെയ്യണമായിരുന്നു നിങ്ങളുടെ പാക്കിങ് വളരെ മോശമായിരുന്നു അതുകൊണ്ടു തന്നെ എനിക്ക് ഞാൻ ഓഡർ ചെയ്ത സാധനവും കിട്ടിയില്ല അതുകാരണം കിട്ടാത്തതുകാരണം എനിക്കൊരുപാട് നഷ്ടമുണ്ടായി എനിക്ക് അതുകൊണ്ട് എൻ്റെ ഫണ്ട് അതായത് എൻ്റെ പൈസ റീഫണ്ട് ചെയ്യണം നിങ്ങൾ തന്നെ റീഫണ്ട് ചെയ്യണം ചുരുങ്ങിയത് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എന്നെ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരാതിപ്പെടും